ആ പാലക്കാടുള്ള റേസ് ഡീലർ കമ്പനിയല്ലേ ആ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു ആ എനിക്ക് എന്താ ഒരു ഫങ്ഷന് വേണ്ടി സ്പെഷ്യല് ആയിട്ടുള്ള കുറച്ച് അരികൾ വേണ്ടിയിരുന്നു അല്ല ബിരിയാണിക്ക് ബെസ്റ്റ് അതാണോ ആ ആ ഞാനെന്നാൽ ഇത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ എത്രയാ വരുന്നത് വൺ തേട്ടിക്കൊക്കെ ഇത് ഇത് ഹോം ഡെലിവറിക്ക് ചെയ്യാം ആ എനിക്ക് ഫങ്ഷന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പോഴേക്ക് എത്തിച്ചുതന്നാൽ മതിയായിരുന്നു ഇല്ലല്ല ഹോം ഡെലിവറി ചെയ്യാനായിരുന്നു വീട്ടിലേക്ക് എത്തിച്ചുതരികയാണെങ്കിൽ അത്രയും ഉപകാരമായിരുന്നു ഞാൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വാട്സപ്പില് അയക്കണ്ട് ബിരിയാണി സ്ഥലം പാലക്കാട് അടുത്തുതന്നെ ആണ് ആ പിന്നെ ഒരു അമ്പത് കിലോ വേണ്ടിയിരുന്നു ബിരിയാണിക്ക് സ്പെഷ്യല് ആ ബസ്ണതി റൈസല്ലേ പറഞ്ഞത് ആ അതും പിന്നെ മന്തിരിക്ക് അതിന് എത്ര റേറ്റ് വരുന്നത് ആ അപ്പം അതുംകൂടെ വേണമായിരുന്നു രണ്ടുംകൂടെ ഒരു അമ്പത് കിലോ ആ ഓക്ക രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഫങ്ഷന് അപ്പോൾ അതിനനുസരിച്ച് എത്തിച്ചുതന്നാൽ ഉപകാരമായിരുന്നു ആ ഓക്കെ നിങ്ങൾ വീട്ടിലെത്തിച്ചുതരുന്നതിൽ നന്ദി ഓക്കെ ഓക്കെ